ഞങ്ങളുടെ ഗ്രാമത്തില് പ്രത്യേകിച്ച് ഗ്രാമത്തില് കുടുംബങ്ങള് തമ്മില് വലിയ തര്ക്കങ്ങളൊന്നും ഉണ്ടാകാറില്ല കുടുംബങ്ങള് തമ്മില് തര്ക്കങ്ങള് അഥവാ ഉണ്ടായാല് അത് കുടുംബാംഗങ്ങള് എല്ലാവരും ചേര്ന്ന് ഒത്തു ചേര്ന്ന് അത് പരിഹരിക്കപ്പെടുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് കുടുംബത്തില് തര്ക്കങ്ങള് ഉണ്ടാവുമ്പോള് കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേര്ന്ന് പരസ്പരം പറഞ്ഞു തീര്ത്ത് അത് ആ കുടുംബത്തിലെ കാരണവറതിന് വേണ്ടുന്നതായ നിര്ദ്ദേശങ്ങളൊക്കെ നല്കി കുടുംബത്തില്ത്തന്നെ അത് തീര്ക്കുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് അങ്ങനെ കുടുംബത്തില് തീരാത്തതായ പ്രശ്നങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കില് അത് പിന്നെ ഞങ്ങൾ ചെയ്യാറുള്ളത് ഞങ്ങളുടെ ഇടവക വികാരിയെ അറിയിക്കുക എന്നുള്ളതാണ് വികാരിയുടെ വികാരിയെക്കൂടെ കൂട്ടി ഞങ്ങള് ഞങ്ങളുടെ ഭവനത്തില് വെച്ച് തന്നെയാണ് കൂടുതലും അതൊക്കെ ചെയ്ത് പല ഭവനങ്ങളിലും വെച്ച് തന്നെയാണതൊക്കെ തീര്ക്കാറുള്ളത് പിന്നെ പള്ളിമേടയിൽ അച്ഛനോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുക അച്ഛനും കൂടെ വേണ്ടുന്ന നിര്ദ്ദേശങ്ങളൊക്കെ നല്കുക കുടുംബാംഗങ്ങളെ വിളിപ്പിക്കുക അതും അല്ലെങ്കില് കുടുംബത്തില് അച്ഛന് കൂടെ കുടുംബത്തില് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒത്തുതീര്പ്പാക്കുക അതൊക്കെത്തന്നെയാണ് ഇന്ന് ചെയ്യാറുള്ളത് അല്ലാതെ കുടുംബങ്ങള് തമ്മില് ഗ്രാമമാണെങ്കില് വലിയ ഗ്രാമമാണെങ്കിലും ഗ്രാമത്തില് കുടുംബങ്ങള് തമ്മില് വലിയ പ്രശ്നങ്ങളൊന്നും അധികമൊന്നും കുടുംബങ്ങള് തമ്മില് തമ്മില് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകുക വളരെ കുറവാണ് അഥവാ ഉണ്ടായാല്ത്തന്നെ ഞങ്ങൾ ഒക്കെയും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെത്തന്നെയാണ് കുടുംബനാഥന്മാരും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒത്തുചേര്ന്ന് കുടുംബത്തില്ത്തന്നെ കുടുംബത്തില് വെച്ചുതന്നെ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം പറയുക പരസ്പരം പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ധാരണകളാക്കുക കുടുംബപ്രശ്നങ്ങളില്ലാതാക്കുക കഴിവതും ഒഴിവാക്കാന് വേണ്ടി അങ്ങനെ കുടുംബനാഥന്മാരാണതിന് മുന്കൈയെടുത്ത് പ്രവര്ത്തിക്കാറുള്ളത് അങ്ങനെ കുടുംബനാഥന്മാരുടെ കയ്യിലും നിൽക്കാതെ വരുന്ന കാര്യങ്ങളാണെങ്കില് മാത്രമേ കുടുംബത്തില്ക്കൊണ്ടും നിൽക്കാതെ വരുന്ന കാര്യങ്ങള് മാത്രമാണ് ഉണ്ടെങ്കില് മാത്രമേ പുറത്ത് മറ്റൊരു മധ്യസ്ഥതയ്ക്ക് ആരെയെങ്കിലും വിളിക്കുകയോ കൂട്ടുകയോ അതിന് പരിഹാരം കാണുകയോ ചെയ്യാറുള്ളു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഈ ഗ്രാമത്തില് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുടുംബത്തില് പ്രശ്നങ്ങളുണ്ടായാല് കുടുംബക്കാരെല്ലാവരും കൂടെ കൂടി തന്നെ അത് പരിഹരിക്കുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് പിന്നെ കുടുംബക്കാരുടെ കയ്യില്നിന്നും വിട്ടുപോകുന്ന പ്രശ്നങ്ങള് ഉണ്ടെങ്കില് അത് പഞ്ചായത്തിന് പഞ്ചായത്ത് മെമ്പറ് പ്രസിഡന്റ് വികാരിയച്ഛന് അങ്ങനെയുള്ള ആള്ക്കാരുടെയൊക്കെ അടുക്കല് കൂടുതല് സഹായങ്ങള്ക്കു വേണ്ടി ചെല്ലാറുണ്ട് എന്നുള്ളതേയുള്ളൂ കൂടുതലായും പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും കുടുംബത്തില്ത്തന്നെ തീരാനുള്ള പ്രശ്നങ്ങള് മാത്രമേ ഓരോ ഭവനങ്ങളിലും ഉള്ളു എന്നാണ് എന്റെ വിശ്വാസം അതെനിക്കറിയില്ല എന്നാലും എന്റെ അനുഭവത്തില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല അങ്ങനെ കുടുംബ പ്രശ്നങ്ങളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മളുടെ വീടായാല് വീട്ടിലെന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കില് അതൊക്കെ വീടുകളില് തന്നെ വീട്ടിലെ മുതിര്ന്നവരുമായിട്ട് സംസാരിച്ച് കൂടിവന്നാല് അത്രയെ ഇതിനു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കൂടുതല് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങള് ഉണ്ടായാല്ത്തന്നെ നമ്മുടെ ഭവനത്തില് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേര്ന്ന് അത് ചെയ്യുകയാണ് പതിവ് പിന്നെ നിൽക്കാതെ വരുന്ന കാര്യങ്ങള് വികാരിയച്ഛനെയോ അല്ലെങ്കില് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറ് ഇങ്ങനെയൊക്കെ അറിയിക്കാറുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു അങ്ങനെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല